ഇന്ത്യയുടെ ഫാഷനെക്കുറിച്ച് പറയാണെങ്കില് ഇപ്പോള് ഇന്ത്യയില് പല പല പല സംസ്ഥാനങ്ങളുണ്ട് ഓരോ സംസ്ഥാനത്തും അവര് ഫോളോ ചെയ്യുന്നത് ഓരോ ഫാഷനുകളാണ് അപ്പോള് നമ്മുടെ കേരളമെന്ന സംസ്ഥാനമെടുക്കുവാണ് എങ്കില് അവിടെ ആൾക്കാര് പൊതുവെ യൂസെയ്യുന്നെ സാരി അല്ലെങ്കില് പാന്റ് ഷര്ട്ട് പുരുഷന്മാര് അല്ലെങ്കില് മുണ്ട് ഷര്ട്ട് കുര്ത്താസ് ചുരിദാര് അങ്ങനെയാണ് കേരള സംസ്ഥാനത്ത് ആ പൊതുവേ കണ്ടു വരുന്നത് അല്ലെങ്കില് പട്ടുപാവാട ബ്ലൗസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോള് നമ്മള് ഇതര സംസ്ഥാനങ്ങള് എടുക്കുവാണെങ്കില് അവിടവിടെ കുറച്ചും കൂടെ മോഡേണായിട്ടുള്ള ഡ്രെസ്സും കാര്യങ്ങളൊക്കെയായിരിക്കും അവര് ധരിക്കുന്നത് അപ്പോള് ഓരോ സംസ്ഥാനത്തും അവരുടേതായ രീതിയിലുള്ള വസ്ത്ര രീതികളാണ് നമുക്കിപ്പോള് കാണാന് പറ്റും ഇപ്പോള് നമ്മള് പഞ്ചാബിലൊക്കെ പോയിക്കഴിഞ്ഞാല് അവര്ക്ക് സുഖം അവര്ക്ക് തലക്കെട്ട് തലപ്പാവ് ഒരു സംഭവമുണ്ട് അത് അവര്ക്ക് അത് അവിടെ കോമണായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോള് അങ്ങനെ ഓരോ സംസ്ഥാനത്തും പല രീതിയിലുള്ള ഫാഷനുകളാണ് വസ്ത്ര രീതികളാണ് ഉള്ളത് ഇപ്പോഴത്തെ നമ്മടെ കാലഘട്ടമെടുത്തു നോക്കുവാണെങ്കില് പഴയ രീതീനെ വെച്ചു നോക്കുമ്പോള് ഒരുപാട് നമ്മുടെ വസ്ത്ര രീതിയില് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോള് ഉദാഹരണത്തിന് പണ്ട് ഉള്ള ആള്ക്കാരെന്ന് പറയുമ്പോള് അവര് ഈ മുണ്ടും നേരിയതും അല്ലെങ്കില് അമ്മച്ചിമാരൊക്കെയാണേലും എന്താ ചട്ടയും മുണ്ട് അല്ലെങ്കില് സാരി അങ്ങനുള്ള കാര്യങ്ങള് പക്ഷേ ഇപ്പോള് ഇപ്പോഴത്തെ ഒരു ഇത് എടുത്തു കഴിഞ്ഞാല് വീട്ടിലാണേലും ആള്ക്കാര് ചുരിദാറിടും അല്ലെങ്കില് നൈറ്റിയാക്കും പ്രായമുള്ള അമ്മച്ചിമാരാണേല് ഇങ്ങനെ നൈറ്റിയിലൊക്കെ ചട്ടയും മുണ്ടൊക്കെ മാറി അവര് നൈറ്റി ആ ഒരു ഇതിലേക്ക് വന്നപ്പോള് ഒരുപാട് നമ്മുടെ കാലം ജനറേഷന് മാറുന്നതനുസരിച്ച് അവരുടെ വസ്ത്രരീതിയിലും അതിന്റെ മാറ്റം നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് നമ്മള് പറയും അതു കൂടാതെ തന്നെ ഈ പാശ്ചാത്യ വസ്ത്ര രീതികള് അതും നമ്മള് ഇന്ത്യക്കാരെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് കാരണം ഇവിടെ നിന്ന് ഒരുപാട് ആള്ക്കാര് പുറത്ത് പോയി വര്ക്ക് ചെയ്യുകയും അല്ലെങ്കില് അവരവിടെ സെറ്റിലാകുമ്പോള് അവര് ആ ഒരു ഇതിനോട് യോജിച്ച വിധത്തിലുള്ള വസ്ത്രങ്ങളായിരിക്കും അവര് ധരിക്കുന്നത് അപ്പോള് അവര് തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് വരുമ്പോഴാണെങ്കിലും ചിലപ്പോള് അവരത് ഫോളോ ചെയ്യും ധരിക്കാന് ഇത് മതി എന്നുള്ള രീതിയില് അവര് ആ വസ്ത്രം മോഡേണായിട്ടുള്ള മറ്റുള്ള രാജ്യങ്ങളിലുള്ള വസ്ത്ര രീതികള് അവരിവിടെ ഇടാറുണ്ട് ഇപ്പോള് എന്താണ് ഇപ്പോള് നമ്മളിവിടെ സാരിയുടുത്ത് നടക്കുന്ന പോലെ ചിലപ്പോള് കാനഡയില് അത് പറ്റത്തില്ലായിരിക്കാം അല്ലെങ്കില് അമേരിക്കയില് അത് പറ്റത്തില്ലായിരിക്കാം പറ്റത്തില്ല എന്നുള്ളതല്ല അത് അത്രേ അല്ല പക്ഷെ അവിടെയെന്നുവച്ചാല് കൂടുതലും മോഡേണായിട്ടുള്ള ഡ്രസ്സുകള് അല്ലെങ്കില് ജീന്സ് ടോപ്പ് അല്ലെ ഷോര്ട്ട്സ് അല്ലെങ്കില് ഹാഫ് ക്രോപ് ടോപ്സ് ഇങ്ങനെ പിന്നെ സ്കേർട്ട് അങ്ങനുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ ഇപ്പോള് നമ്മുടെ ഇന്ത്യയിലും വന്നിട്ടുണ്ട് ഇന്ത്യയിലെന്നു വെച്ചാല് ഒരുപാടിപ്പോള് പിള്ളേരെല്ലാം അങ്ങ് മാറിപ്പോയി ഒരുപാട് ജനറേഷന് എന്താണ് ജനറേഷന് ഒരുപാട് മുന്നോട്ട് പോകുന്നത് അവര് ആ കാലഘട്ടത്തിനനുസരിച്ചാണ് ഇപ്പോള് എല്ലാവരും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോള് എല്ലാവരും പണ്ടത്തെ പിള്ളാരൊക്കെയാണെങ്കില് ചുരിദാറേ ഇടത്തുള്ളൂ കോളേജിലൊക്കെ പോകുമ്പോള് ചുരിദാര് അല്ലെ പട്ടുപാവാട അങ്ങനെയുള്ള കാര്യങ്ങളാണ് പക്ഷേ ഇപ്പോള് ഒന്ന് എടുത്തു നോക്കൂ കോളേജിലൊക്കെ പോവുന്ന കുട്ടികള് ജീന്സ് ടോപ്പ് അല്ലെങ്കില് കുര്ത്താസ് അങ്ങനെയുള്ള ഒറ്റ ഒരു ഫ്രോക്ക് അങ്ങനുള്ള കാര്യങ്ങളിലേക്ക് ഒത്തിരി മാറിയിട്ടുണ്ട് അവ എന്റെ എന്റെ ഒര് ഇതെന്നു പറയുന്നത് നമ്മള്ക്ക് കംഫർട് ആയിട്ടുള്ള നമുക്കിഷ്ടമുള്ള രീതിയിലുള്ള ഡ്രസ്സ് ധരിക്കുക അത് മറ്റുള്ളവര് എന്ത് പറയും എന്ന് വിചാരിക്കേണ്ടൊരാവശ്യമില്ല എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്നു പറയുന്നത് എനിക്ക് ജീന്സും ടോപ്പും ഇടാന് ഏറെ ഇഷ്ടമാണ് അതുപോലെ തന്നെ ചെറിയ ഉടുപ്പുകള് ആങ്കിൾ വരെയുള്ള ഉടുപ്പുകളിട്ട് നടക്കാനെനിക്ക് വളരെ ഇഷ്ടമാണ് ഞാന് പൊതുവേ എന്റെ ഡ്രസ്സൊക്കെ ഞാന് സ്റ്റിച്ച് ചെയ്യും നല്ല ബുടീക്കിലൊക്കെ കൊടുത്ത് സ്റ്റിച്ച് ചെയ്യും അല്ലെങ്കില് നല്ല ബ്രാന്ഡായിട്ടുള്ള കടകളില് നിന്നാണ് വാങ്ങിക്കുന്നത്